നമ്മുടെ വയനാട് ജില്ലയിൽ പുതുതായിട്ട് സർക്കാർ കൊണ്ടുവന്നതാണ് ജലജീവൻ മിഷൻ അത് എന്താണെന്ന് ചോദിച്ചാൽ ചില ഗ്രാമ പ്രദേശങ്ങളിൽ വെള്ളം കിട്ടാതെ അത്ര കഷ്ടപ്പെടുന്ന കുറേ ജനങ്ങൾ നമുക്ക് കാണുന്നുണ്ട് അവർക്ക് വേണ്ടി അവർക്ക് ഒരു സഹായകരമായി ആണ് ജലജീവൻ മിഷൻ സർക്കാർ നടപ്പിലാക്കുന്നത് എന്താ ചോദിച്ചാൽ അവർ പൈസ കൊടുത്തൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ നമുക്ക് നമ്മുടെ ജലം മേടിക്കുന്നത് നമ്മൾ പാഴാക്കുന്ന ജലം അവർ പൈസ കൊടുത്ത് മേടിച്ച് ജീവിക്കുകയാണ് അതെ സമയം സർക്കാർ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത് ജലജീവൻ മിഷൻ എന്നു പറയുന്നത് അതുപോലെതന്നെ വയനാട്ടിൽ നടക്കുന്ന ഒരു പദ്ധതിയാണ് കടമ്പാന്തോട് പദ്ധതി ആ ഒരു വലിയൊരു ഡാമ് വന്ന് ഇവിടെ നമുക്ക് വേണ്ടി നല്ലൊരു ഡാം കൊണ്ടുവരികയാണ് പക്ഷെ അതേ സമയം നോക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് വേണ്ടിയുള്ള പൈസയും അവർക്ക് വേണ്ടിയുള്ള വീടും കാര്യങ്ങളും സർക്കാർ തന്നെ വച്ചു കൊടുത്ത്